ഹലോ ആ ഹലോ ആ ഞാനൊരു ക്ലയന്റ് ആണെ റിയൽ എസ്റ്റേറ്റ് ആണോ നിങ്ങളുടെ പരിപാടി

എനിക്ക് വേണ്ടിയത് ഒരു കച്ചവടം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സെൻ്ററിലുള്ള ഒരു സ്ഥലവാണെനിക്ക് വേണ്ടത് അതിന് ഉള്ള ഒരു സ്ഥലവെന്ന് പറഞ്ഞപ്പം എനിക്കൊരു നല്ല ഒരു ബിൽഡിങ്ങുള്ള ഒരുസ്ഥലവാണെനിക്കാവശ്യം ഒരിച്ചിരെ നല്ല ഇതായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് പോലെയൊരു കട തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലവാണെനിക്ക് വേണ്ടിയത് ഒരിച്ചിരെ എനിക്ക് റോഡ് സൗകര്യമുള്ളത് വേണം എനിക്ക് റോഡ് സൗകര്യം കുറഞ്ഞതായാൽ വണ്ടികള് വരാനായിട്ട് ബുദ്ധിമുട്ടാണെ അപ്പം പാർക്കിങ്ങിന് അങ്ങനെ ഒക്കെ ഉള്ള സ്ഥലം എടുക്കുമ്പം കൂടുതല് സ്ഥലം എടുക്കേണ്ടി വരത്തില്ലേ ഇപ്പം ഇതിനൊക്കെ എങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒക്കെ അവിടുത്തെയൊക്കെ വിളകളൊക്കെ എങ്ങനെ ആണ് ഒര് സെൻ്റിന് മൂന്നര ലക്ഷം അപ്പം അത് ഇങ്ങനെ ഇപ്പോൾ കുറഞ്ഞ പ്ലോട്ടായിട്ട് കിട്ടുമോ അപ്പം വലിയൊരു പ്ലോട്ട് ആകുമ്പത്തേക്കുമേ അപ്പം നമുക്ക് ഒരു സെൻറ്ററിൽ തന്നെ ഫ്രണ്ടേജൊക്കെ വരുന്ന കണക്കുള്ള സ്ഥാനം തന്നെ സ്ഥലം കിട്ടണമല്ലൊ അങ്ങനെ കിട്ടുവോ ആ ആ

ആ ഞാൻ വിളിക്കാ എനിക്ക് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മതി എനിക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം മതി പിന്നെ അഞ്ച് സെൻറ്റ് ഒരു ബിസിനസിന് ഒരു ബിൽഡിങ്ങുണ്ടാക്കണമെങ്കി ൽ അഞ്ച് സെൻറ്റ് സ്ഥലം ധരാളമല്ലേ അതിന് താഴേഴും പണിത് മുകളിലും ഒരു മൂന്ന് നിലയൊക്കെ ആയിട്ട് ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ എനിക്കൊരു ബിസിനസിനായിട്ടുള്ള സ്ഥലം ആകുകയില്ലെ ചെറിയ ബിൽഡിങ്ങെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പണിയുക ഒരു മൂന്നോ നാലോ നിലയുള്ള കെട്ടിടം പണിയുക ഒരഞ്ച് അതിൽ കൂടുതലൊന്നും ഒരു ബിസിനസ്സിന് ഒരു കടക്ക് ആവശ്യമില്ലല്ലൊ അഞ്ച് സെൻറ്റൊക്കെത്തന്നെ കൂടുതൽ ആണ് ഒരു സെൻറ്റൊക്കെ എടുത്തിട്ടാൽ ഓരോര്ത്തര് കടയൊക്കെ ഉണ്ടാക്കുന്നത് അറിയാവോ അഞ്ച് സെൻറ്റെന്നൊക്കെ പറയുമ്പം ഒരു കടമുറിക്ക് ധാരാളവായി എന്നാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്നും കൂടെ വിളിക്ക് ഞാൻ ആലോചിച്ചിട്ട് പറയാം ആ അപ്പം ഞാൻ അന്നേരം നിങ്ങളുടെ സ്ഥലം ഒന്ന് വിളിച്ചിട്ട് ഞാൻ അവിടെ കാണാനായിട്ട് വരാം വന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകാം ശരി ഓക്കെ